കന്നുകാലികളെ പരിപാലിക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യം തന്നെയാണ് കാരണം മനുഷ്യ ജീവിതം എന്നു പറയുന്നതു പോലെ തന്നെ മൃഗങ്ങളുടെ ജീവിതവും വളരെയധികം പ്രധാനപ്പെട്ട ഒരു സംഭവം തന്നെയാണ് അതിനെ വളരെ സിസ്റ്റമാറ്റിക്കായിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ ആ പറഞ്ഞ നമുക്ക് കിട്ടുന്ന ഉപദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ വേണം നമ്മളതിനെ പരിപാലിക്കാന് ചില ആള്ക്കാരൊക്കെ അവര്ക്കറിയാവുന്നതായിട്ടുള്ള പ്രാഥമികമായിട്ടുള്ള അറിവുകൾ വെച്ചു ചെയ്യുമ്പോള് അതിന്റേതായിട്ടുള്ള അപകടങ്ങളുണ്ട് ഇപ്പോൾ നമുക്ക് മൃഗാശുപത്രീ പോയിക്കഴിഞ്ഞാല് ഓരോരോ മൃഗങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഉള്ള നമ്മുടെ പശു അല്ലെങ്കില് ആട് അല്ലെങ്കിൽ പോത്ത് പന്നി ഇങ്ങനത്തെ അങ്ങനത്തെ പശുക്കളും ആടുകളൊക്കെ ആയിരിക്കും മിക്ക വീടുകളിലും കൂടുതൽ കന്നുകാലികളുള്ളത് അപ്പോൾ അതിനെയൊക്കെ എങ്ങനെയാണ് പരിപാലിക്കേണ്ടതെന്ന് കൃത്യമായിട്ട് രീതിയിലവർ പറഞ്ഞു തരുന്നു ആ ഒരു രീതിയിൽ വേണം നമ്മളതിനെ പരിപാലിക്കാന് അതുപോലെതന്നെ ഇപ്പോള് എന്റെ വീട്ടിലാണെങ്കില് പശു ഉണ്ട് അപ്പോൾ പശു തീര്ച്ചയായിട്ടും അതിന്റേതായിട്ടു നോക്കാന് അതിൻ്റേതായിട്ടുള്ളൊരു സമയം നമ്മള് കണ്ടെത്തണം ആ സമയം കണ്ടെത്തിയാല് മാത്രമേ നമുക്കതിനെ നല്ല രീതിയില് പരിപാലിക്കാന് സാധിക്കുകയുള്ളൂ പശു ആണെങ്കില് നമുക്ക് പാല് തരുന്നു ആ പാല് നമുക്കറിയാം അതു വളരെയധികം നല്ല രീതിയില് ആ പാലിനെ ഇതു ചെയ്യണം അപ്പോൾ ചില ആള്ക്കാരൊക്കെ പാലിൽ വെള്ളമൊക്കെ ചേര്ത്തു കൊടുക്കുന്നുണ്ട് അപ്പോൾ എന്നാല് പോലും ചെറിയ രീതിയില് വെള്ളം ഉപയോഗിക്കുന്നതിനു കുഴപ്പമില്ല എന്നാൽപ്പോലും കൂടുതൽ ആ പാല് തന്നെയാണ് നമുക്കതിനെ പ്രാധാന്യത്തോടെ കിട്ടേണ്ടത് അപ്പോൾ അതിനു വേണ്ടി നല്ല പുല്ല് അല്ലെ നല്ല രീതിയിലതിനെ പുല്ലുള്ള സ്ഥലത്തേക്കു നമ്മള് പശുവിനെ കെട്ടണം അതൊക്കെ വലിയ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഏറ്റവും വലുത് പശുക്കൾ കിടക്കുന്ന തൊഴുത്തിൽ വൃത്തി ഉണ്ടായിരിക്കണം കാരണം പിന്നെ വൃത്തി ഇല്ലാത്ത ഒരന്തരീക്ഷം സൃഷ്ടിച്ചു കഴിഞ്ഞാല് പശുക്കള്ക്ക് പലപല അസുഖങ്ങൾ വരും അവരുടെ അകിട്ടില് അകിട്ടിലൊക്കെ അസുഖവും കാര്യങ്ങളൊക്കെ വരും അതു തീര്ച്ചയായിട്ടും ആ പാല് ലഭ്യതേനെ ആ ഒരു ശേഷിയെ നശിപ്പിക്കുക തന്നെ ചെയ്യും അപ്പോൾ തീര്ച്ചയായിട്ടും ഇവർ നമുക്കറിയാം ഇപ്പോൾ പല കുടുംബങ്ങളും കന്നുകാലികളെ ആശ്രയിച്ചൊക്കെ ആയിരിക്കും അവരുടെ ജീവിതം മുന്നോട്ടു കൊണ്ടു പോകുന്നത് അവരുടെ കുട്ടികളെ പഠിപ്പിക്കുന്നതും അവരുടെ ജീവിതങ്ങളൊക്കെ മുന്നോട്ടു കൊണ്ടു പോകുന്നത് ഈ കന്നുകാലികളെ ആശ്രയിച്ചിരിക്കും അപ്പോൾ കന്നുകാലികളെ സംരക്ഷിക്കേണ്ടത് അത്രത്തോളം പ്രാധാന്യത്തോടെ കാണേണ്ട ഒരു കാര്യം തന്നെയാണ് അതുപോലെ തന്നെ മൃഗങ്ങളെ നമുക്കറിയാം നമ്മൾ പരിപാലിക്കുമ്പോള് അവരോടു തീര്ച്ചയായിട്ടും ഒരു സ്നേഹം കാണിക്ക് നമ്മൾ പരിപാലിക്കുമ്പോള് അത് ചുമ്മാ ഒരര്ത്ഥമില്ലാതെ ചെയ്താല് പോര അല്ലാതെ ചുമ്മാ ദേഷ്യപ്പെട്ട് അവരെ അടിച്ച് അവരെ ഉപദ്രവിച്ചല്ല പരിപാലിക്കേണ്ടത് വളരെ സ്നേഹത്തോടെ സൗമ്യതയോടെ ഒക്കെ വേണം നമ്മളതിനെ പരിപാലിക്കാന് തീര്ച്ചയായിട്ടും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ദിവസേന നമുക്ക് പല കാര്യങ്ങളും നമ്മൾ നേരിടേണ്ടി വരുന്നു അപ്പോൾ അതിലൂടെയൊക്കെ നമുക്ക് ചിലപ്പോൾ ദേഷ്യമുണ്ടാകും ആ ദേഷ്യം ഒരിക്കലും നമ്മൾ കന്നുകാലികളോടു കാണിക്കാന് പാടില്ല കാരണം അവർ മിണ്ടാപ്രാണികളാണ് അവര് യജമാനന് പറയുന്നതനുസരിക്കും അപ്പോൾ നമ്മൾ യജമാനന്റെ ഒരു ഓരോരോ റോളാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ആ യജമാന്റെ ആ ഒരു സ്ഥാനത്തു നിന്നു കൊണ്ട് നമ്മളതിനെ നന്നായിട്ട് പരിപാലിക്കാന് നമ്മള്ക്കതിനെ ചെയ്യുന്നു അതുപോലെതന്നെ ആടുകൾ ആരാണെങ്കിലും നമ്മളതിനെ പരിപാലിക്കേണ്ടതായിട്ടുള്ള രീതി രീതികളുണ്ട് ഇപ്പം മൃഗാശുപത്രിയിൽ നമ്മൾ പോയി കഴിഞ്ഞു കഴിഞ്ഞാല് മൃഗങ്ങളെ പരിപാലിക്കണം എന്നുള്ള രീതിയിലവർ കൃത്യമായിട്ട് ഉപദേശങ്ങള് തരുന്നു കൃത്യമായിട്ട് എന്തൊക്കെയാണ് എന്തൊക്കെ മരുന്നുകളാണ് കൊടുക്കേണ്ടത് ഒരസുഖം വന്നു കഴിഞ്ഞാല് എങ്ങനെ ചെയ്യണം പെട്ടെന്ന് എന്തെങ്കിലും അത്യാവശ്യ ഘട്ടങ്ങളിലാണെങ്കിലും എന്തൊക്കെ ചെയ്യണം എന്നൊക്കെ കൃത്യമായിട്ടവർ പറഞ്ഞു തരുന്നുണ്ട് അതനുസരിച്ചു വേണം നമ്മൾ ചെയ്യാന് ആ ഒരു രീതിയിൽ നമ്മുടെ പരിപാലിത്തിനെ നമ്മൾ നോക്കിക്കാണേണ്ടതുണ്ട് അതുപോലെതന്നെ നമുക്കറിയാം ഇപ്പോൾ ഈ പശുക്കളെ കന്നുകാലി വളത്തുന്നവര്ക്ക് ഗവണ്മെന്റ് വലിയ രീതിയിൽ സബ്സിഡികൾ അല്ലെങ്കില് ബാങ്ക് പരമായിട്ടൊക്കെ അതിനെ അതിനെയൊക്കെ ഇതു ചെയ്തിട്ട് സബ്സിഡികൾ നല്കുന്നുണ്ട് അപ്പോൾ അതിലൂടെയൊക്കെ നമുക്കറിയാം കന്നുകാലികളെ വളർത്തുന്ന അത്രത്തോളം ചെറിയ നിസ്സാരമായിട്ടുള്ളൊരു കാര്യമൊന്നുമല്ല അതിന് അതിന്റേതായിട്ടുള്ളൊരു സമയമുണ്ട് വലിയ പ്രാധാന്യത്തോടെ വേണം അതിനെ കാണാന് അതുപോലെതന്നെ നമ്മൾ വലിയൊരു സമയം തന്നെയാണ് അതിനു മാറ്റി കൊടുക്കേണ്ടത് അപ്പോൾ തീര്ച്ചയായിട്ടും ഇപ്പോൾ പല ആള്ക്കാര്ക്കൊക്കെ ചില ആള്ക്കാരൊക്കെ പറയുന്നതു കാണാം ഞങ്ങൾക്ക് കന്നുകാലികളെ പരിപാലിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയത്തില്ല അവര്ക്ക് ആഗ്രഹമാണ് കാരണം അത്രത്തോളം നല്ലൊരു രസകരവും കൗതുക പരമായിട്ടുള്ളൊരു കാര്യം നമ്മൾ പുറമേ പുറമേ നമ്മളിങ്ങനെ പറയുമ്പോൾ ആള്ക്കാർ ഓ ഇതു ഭയങ്കര ബുദ്ധിമുട്ടാണ് ബുദ്ധിമുട്ടുണ്ട് ഇല്ലയെന്നല്ല ഏതൊരു കാര്യത്തിനും ബുദ്ധിമുട്ടുണ്ടല്ലോ ആ ബുദ്ധിമുട്ടുകള് അതിജീവിച്ചാല് മാത്രമേ നമുക്ക് മുന്നോട്ടു പോകുവാന് സാധിക്കുകയുള്ളൂ കാരണം ജീവിതം എന്നു പറയുന്നത് ഒരു സുഖവും മാത്രമുള്ളതല്ല ബുദ്ധിമുട്ടുകൾ ഉറപ്പായിട്ടും ജീവിതത്തിനുണ്ടാകും പരണം അതിനെ അതിജീവിക്കുന്നതിലാണ് നമ്മുടെ മനുഷ്യനെന്നുള്ള രീതിയിൽ നമ്മുടെ ഒരു നമ്മുടെ കഴിവ് അല്ലേ നമ്മുടെ ശക്തി എന്നു പറയുന്നത് അപ്പോൾ തീര്ച്ചയായിട്ടും ഈ കന്നുകാലികളൊക്കെ അവരെ പരിപാലിക്കാന് നമ്മൾ ദിവസേന കുറേ കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതുണ്ട് രാവിലെ തന്നെ കുളിപ്പിക്കണം അതുപോലെ തന്നെ അതിന്റെ പാല് എടുക്കേണ്ട സമയം കാര്യങ്ങൾ കൃത്യമായിട്ടത് എടുക്കണം അതുപോലെ പുല്ല് കൊടുക്കേണ്ട സമയം വൈകിയിട്ട് തൊഴുത്ത് വൃത്തിയാക്കേണ്ട സമയം ചാണകം അത് അതൊക്കെ എങ്ങനെയാണ് സൂക്ഷിച്ച് സൂഷിക്കേണ്ടത് പിന്നെ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അടുത്ത ഘട്ടങ്ങളിലേക്ക് അല്ലെങ്കിൽ നമ്മൾ സൊസൈറ്റിയിലൊക്കെ ആയിരിക്കും നമ്മൾ പാല് കൊടുക്കുന്നത് അല്ലെ കടകളിലൊക്കെ നമ്മളങ്ങനെ പാല് കൊടുക്കുന്നു അപ്പം നമ്മൾ മറ്റ് വീടുകളിലൊക്കെ കൊടുക്കുന്നു അപ്പോൾ ഇതൊക്കെ വലിയ രീതിയിൽ വരുമാനവും കൂടി നമുക്കീ കന്നുകാലികളെ നല്ല രീതിയിൽ പരിപാലിക്കുന്ന നമുക്ക് നല്ലൊരു വരുമാന ശ്രോതസ്സും കൂടിയാണ് ആ കുടുംബത്തിന് തുറന്നു കിട്ടുന്നത് അതൊക്കെ തീര്ച്ചയായിട്ടും ഉപയോഗിക്കണം